എങ്ങനെയൊക്കെ ആണ് നമ്മളുടെ നാട്ടിൽ കളികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതെന്നത് പഞ്ചായത്തുകൾ മുഖേന പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഓരോ വാർഡ് തലത്തിൽ കുട്ടികളേ സംഘടിപ്പിക്കുകയും അവരെ ഓരോരോ മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ച് അവരുടെ കഴിവിനെയും വികസിപ്പിച്ച് എടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് അതിന് പഞ്ചായത്തുകൾ മുഖേന ഓരോ ഓണം അല്ലെങ്കിൽ അതുപോലെയുള്ള ഫെസ്റ്റിവലുകളൊക്കെ വരുമ്പോൾ കുട്ടികളേ പ്രത്യേകിച്ച് പഠിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ അവരെയൊക്കെ ഓരോരോ മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ച് അതിനു പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി അവരുടെ കഴിവുകളേ വികസിപ്പിച്ച് നമ്മുടെ നാടിൻ്റെ അമൂല്യ വ്യക്തികളായിട്ട് അവരെയൊക്കെ മാറ്റുവാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് പഞ്ചായത്തിലതിന് പഞ്ചായത്തുകൾ അതിന് പ്രത്യേകം ഗ്രൗണ്ടുകൾ സംഘടി കണ്ടെടുക്കുകയും ആ ഗ്രൗണ്ടിൽ അവർക്ക് കുട്ടികൾക്കു വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും അതിന് പ്രത്യേകം ഇതി കളികൾ പരിശീലിപ്പിക്കാൻ വേണ്ടി ഒരു ട്രേയ്നറേ വെച്ച് അതിനു പരിശീലിപ് പരിശീലനം കൊടുത്ത് അവരേ നല്ല രീതിയിലുയർത്തിക്കൊണ്ടു വരുവാൻ നമ്മളുടെ സർക്കാരിന് സാധിക്കും നമ്മുടെ പ്രാദേശിക സ്ഥലത്ത് നമ്മുടെ പഞ്ചായത്തുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പം ഷട്ടിൽ ബാട്മിൻറ്റൻ അതുപോലെ തന്നെ മറ്റുള്ള ഓട്ടം അല്ലെങ്കിൽ അതിംസിൽ ഉള്ള അല്ലെങ്കിൽ ഫുട് ബോൾ അല്ലെങ്കിൽ അന്ന് അന്യം നിന്നു കൊണ്ടിരിക്കുന്ന കുഴിപ്പന്തു കളി അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഓരോ ത കാര്യങ്ങൾ ഇങ്ങനെ കളികൾ പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിൽ നിന്നു കൊണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അത് പഞ്ചായത്തുകൾക്കു സാധിക്കുന്ന കാര്യമാണ് അതിന് സ്ക് പഞ്ചായത്തിന് പ്രത്യേകിച്ച് ഗ്രൗണ്ടുകളില്ലെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടുകളിൽ അവർക്കു വേണ്ട പരിശീലനം നല്കാൻ പഞ്ചായത്തുകൾ മുൻങ്ക് മുൻകൈയ്യെടുത്ത് അതിനു വേണ്ട പ്രോത്സാഹനങ്ങളവർക്കു നൽകി അവർക്കു വേണ്ട പരിശീലനം കൊടുത്ത് അവരേ വിജയിപ്പിക്കാൻ അവർ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഓരോ പഞ്ചായത്തിൻ്റെ അങ്ങ് പഞ്ചായത്ത് പ്രസിഡൻറ്റ് മുതൽ അല്ലെങ്കിലാ വാർഡ് മെമ്പർക്കു മുതൽ ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ ഉള്ള ആ ഉത്തരവാദിത്വത്തിൽ അവർ അവരേ മറ്റു കുട്ടികൾ അവർക്കു വേണ്ട കഴിവുകൾ നൽകി അവരേ പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ പല രീതിയിലും പ്രാദേശികമായിട്ട് ഈ ഗെയിമുകളേ ഈ പ്രദേശത്തെ ആ കുട്ടികളെ അല്ലെങ്കിൽ അല്പം മുതിർന്നവരേ ഒക്കെ അവരുടെ കഴിവുകളേ വികസിപ്പിച്ചെടുക്കാൻ പഞ്ചായത്തുകൾക്കു സാധിക്കും എന്നു തന്നെ ആണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് പ്രത്യേകം അതിനേ ഗ്രൗണ്ടുകൾ കണ്ടു പിടിച്ച് അതിനേ ട്രേയ്നി ആയിട്ട് ട്രെയിനറേ കണ്ടു പിടിച്ച് അതിനു വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുത്ത് അതിനു വേണ്ട സാമ്പത്തിക സഹായങ്ങൾ പഞ്ചായത്തിൽ നിന്നു നൽകിക്കൊണ്ട് പൊതു ജനങ്ങളേക്കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഇങ്ങനെ കുട്ടികളേ സഹായിക്കാൻ പഞ്ചായത്തുകൾക്കു സാധിക്കും